ആ വിനോദസഞ്ചാരികൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ആ കുറേ അധികം നല്ല വിഭവങ്ങൾ നമ്മുടെ ഇവിടെ അവൈലബിളായിട്ടുണ്ട് അരിക്കുപ്പീലെ വാട്ടർ ഫാൾസിൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഈ കുടുംബശ്രീയുടെ ആൾക്കാരെല്ലാം കൂടെ നടത്തുന്ന ഒരു സ്റ്റാളുണ്ട് അവിടെ ഡിഫറെൻറ് ടൈപ്സിൽ ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിളാണ് അവരത് മീൻസ് അവിടുത്തെ കുടുംബശ്രീയിലവര് വീട്ടിൽത്തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സാധനങ്ങൾ തന്നെയാണ് അവിടെ അവർ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയാണവരുടെ ഫുഡ് അവിടെയൊക്കെ കാണാൻ തന്നെ ഒരു നല്ല ക്ലീനാണ് ക്ലീൻ ആൻഡ് ടൈഡി ആണ് ആ പിന്നവരുടെ ഫുഡും അത്യാവശ്യം നല്ലത് തന്നെയാണ് നോർമ്മലായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലാസും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സ്പൈസസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നും അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും അത് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും വേണ്ടവർക്ക് പിന്നേയും പിന്നേയും കഴിക്കണമെന്ന് തോന്നും അവിടെ കോമണായിട്ട് എനിക്ക് വരുന്ന മിക്ക വിനോദ സഞ്ചാരികളും അവിടുന്ന് തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്